പാലക്കാട് ജില്ലയിലെ ഒരുപാട് പ്രാദേശിക സംരക്ഷണം അല്ലെങ്കിൽ പരിസ്ഥിതി സംരംഭങ്ങൾ ഉണ്ട് കാരണം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ സൈലന്റ് വാലി അതുപോലെ പറമ്പികുളം ധോണി മലമ്പുഴ ഡാം അതുപോലെ തന്നെ പോത്തുണ്ടി ഡാം സീതാർകുണ്ട് അങ്ങനെ ഒരുപാട് പരിസ്ഥിതി സംരംഭങ്ങളുണ്ട് തീർച്ചയായും പരിസ്ഥിതി സംരംഭങ്ങളായതു കൊണ്ടു തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് കാരണം ഇപ്പോ സൈലന്റ് വാലി സൈലന്റ് വാലിയിലായിക്കോട്ടെ അവിടെയൊക്കെ നമ്മളെ വംശനാശം ഭീഷണി നേരിടുന്ന ഒരുപാട് മൃഗങ്ങളെയാണ് അവിടെ സംരക്ഷിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ വെല്ലുവിളികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പം സീതാർകുണ്ടെന്ന് പറയുമ്പോൾ അതായത് കൊല്ലങ്കോട് ജില്ലയിലുള്ളതാണ് നമുക്കറിയുന്ന പോലെ കൊല്ലങ്കോട് ജില്ലയെന്നു പറയുമ്പോൾ ഒരു ടൂറിസ്റ്റ് ഗ്രാമമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങി കൊണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് സഞ്ചാരികൾ കൊല്ലങ്കോട്ട് വന്നു കൊണ്ടിരിക്കയാണ് അതിന്റെതായ ബുദ്ധിമുട്ടുകളും ആ ഗ്രാമം നേരിടുന്നുണ്ട് കാരണം സഞ്ചരികളുടെ വരവ് മൂലം ഒരുപാട് പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം ആ ഒരു ഗ്രാമത്തിനെ തന്നെ ഇല്ലാതാക്കാണ് അങ്ങനെ സഞ്ചാരികൾ വരുന്ന സമയത്ത് പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളും അവിടെ ഇട്ട് ആ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി തന്നെ ഇല്ലാതാക്കാണ് അങ്ങനെ പരിസ്ഥിതി സംരംഭങ്ങൾ ഉണ്ടാവും തോറും അവയ്ക്ക് ഒരുപാട് വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത് തീർച്ചയായും അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വെല്ലുവിളികളാണ് ഭാവിയിലും ഇനി ഉണ്ടാകാൻ പോണത് എൻ്റെ എൻ്റെ ചുറ്റുപാടും അല്ലെങ്കിൽ എൻ്റെ പ്രദേശത്ത് ഞാൻ പരിസ്ഥിതി സംരക്ഷിക്കാറുണ്ട് ഞാൻ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായതുകൊണ്ട് അന്ന് ഞാന് ചെടിയും ചെടിയൊക്കെ നടാറു നട്ടാ നടാറുണ്ട് സ്കൂളുകളിൽ നിന്നൊക്കെ ലഭിച്ച പണ്ട് സ്കൂള്ന്ന് ലഭിച്ച ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് നടാറുണ്ട് പിന്നേ എൻ്റെ വീട്ടിന് പുറകുവശത്തായിട്ടും ഒരുപാട് ചെടികളുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് അപ്പോൾ അവയെല്ലാം ഞാൻ നന്നായിട്ട് പരിപാലിക്കാറുണ്ട് സമയം കിട്ടണ സമയം കിട്ടാറുള്ളപ്പോഴൊക്കെ ഞാൻ അവയ്ക്ക് വെള്ളമൊഴിച്ചും മറ്റും മണ്ണ് മണ്ണ് ഒക്കെ തടമെടുത്തു കൊടുത്തും ഞാൻ അവയൊക്കെ സംരക്ഷിക്കാറുണ്ട് പിന്നീട് ശരിക്കും പ്ലാസ്റ്റിക്കെന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മടെ മണ്ണിനെ തന്നെ കൊല്ലുന്ന ഒരു വസ്തുവായിട്ടാണ് പ്ലാസ്റ്റിക് മാറണത് ഈ ഒരു പ്ലാസിക് മാലിന്യ സംസ്കരണം തീർച്ചയായും നമ്മളുടെ ഭാവിയിൽ വരുന്ന ഒരു ഭാവിയിൽ ഒരു പ്രധാന പ്രശ്നമായി മാറുകയാണ് കാരണം ഇത് സംസ്കരിക്കാനുള്ള ഒരു ഒരു രീതി എന്താണെന്ന് നമ്മളിപ്പോഴും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലെന്നു വേണെങ്കിൽ പറയാം ഹരിതകർമ സേനാംഗങ്ങൾ വീടകളിലൊക്കെ വന്ന് പ്ലാസ്റ്റിക്കും മറ്റ് വെയ്സ്റ്റുകളും അവർ കൊണ്ടുപോയി അതിനെ റിസൈക്കിൾ ചെയ്ത് മറ്റ് പുതിയ വസ്തുക്കളായി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും അവർ നേരെ പ്രവർത്തിക്കാതെ വരുമ്പോൾ റോഡുകളിലും മറ്റും സൈഡുകളിലും ഒക്കെ ആയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരം ആണ് ഉണ്ടാവാറുള്ളത് അങ്ങനെ നഗരങ്ങളിലൊക്കെ സ്ഥിരം കാഴ്ചയാണിത് അങ്ങനെ പ്ലസ്റ്റിക്ക് മാലിന്യം ഇപ്പം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം തീർച്ചയായും കുറക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കയാണ് പിന്നീട് അതു പോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് വെയ്സ്റ്റ് കത്തിച്ചു കൊണ്ട് അത് പിന്നീട് പല അസുഖങ്ങൾക്കും കാരണം ആവുകയാണ് കാരണം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴും അതിൽ നിന്ന് ഒരുപാട് മോശമായിട്ടുള്ള ഒരുപാട് വാതകങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരികയാണ് അങ്ങനെ നമുക്ക് പല ആരോഗ്യകരമായ പല ആരോഗ്യത്തിന് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് അങ്ങനെ പ്ലാസ്റ്റിക് സംസ്കരണം എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്